ഞങ്ങളുടെ പ്രദേശം എന്ന് പറയുമ്പോൾ കേരളത്തിലെ മലപ്പുറം ജില്ലയായ നമ്മുടെ പ്രദേശത്ത് മറ്റുള്ള സംസ്ഥാനങ്ങളെ മറ്റുള്ള ജില്ലകളെ കേരളത്തിൽ നിന്നുള്ള മറ്റുള്ള ജില്ലകളെ അപേക്ഷിച്ച് വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും കൂടുതൽ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ വിജയശതമാനം ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ഉണ്ടാകുന്ന ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല തീർച്ചയായും എന്റെ ഈ ഗ്രാമക്ക് എൻ്റെ ഈ പ്രദേശം പറയുകയാണെങ്കിൽ ഞാനൊരു ഗ്രാമത്തിനുപരി ഒരു നഗരത്തിനോട് അടുത്തുള്ള ഒരു പ്രദേശത്താണ് ഞാൻ ജീവിക്കുന്നത് ഇവിടുത്തെ പ്രവർത്തനമെന്ന് പറയുമ്പോൾ ഇവിടുത്തെ നാട്ടിലുള്ള സംഘടനകൾ ഈ പ്രത്യേകിച്ച് രാഷ്ട്രീയ മതരാഷ്ട്രീയ സംഘടനകൾ എല്ലാവരും ഒത്തൊരുമിച്ചു കൊണ്ട് ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് അവർ പ്രൊമോട്ട് ചെയ്യുന്നു അവർ വിദ്യാർത്ഥികളെ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പ്രചോദനം നൽകുന്നു തികച്ച് പ്ലസ് ടു അതുപോലെ തന്നെ എസ് എൽ സി പ്ര കാര്യങ്ങളിലും അല്ലെങ്കിൽ മറ്റ് വിദ്യാഭ്യാസപരമായിട്ട് ഉള്ള കാര്യങ്ങളിൽ വലിയ പ്രവർത്തനങ്ങളും റാങ്കുകളും കാഴ്ച വെക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇവിടുത്തെ മത സംഘടനകളും രാഷ്ട്രീയ സംഘടനകളും നൽകുന്ന പ്രചോദനങ്ങൾ ആ ആ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സമ്മാനങ്ങൾ തുടങ്ങി എല്ലാവിധ എല്ലാ കാരണം കാര്യം കൊണ്ടും ഇവിടുത്തെ നാട്ടുകാരും പ്രവർത്തകരും ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസകരമായ കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നു അതുപോലെ തന്നെ ഇവിടുത്തെ സംസ്കാരം കേരള സംസ്ഥാനത്തിലെ സംസ്ഥാനമായത് കൊണ്ട് തന്നെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്ക് മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചും ജില്ലകളെ അപേക്ഷിച്ചും ഒക്കെ മലപ്പുറം ജില്ല എന്ന എന്റെ ഈ നാട്ടിൽ കൂടുതൽ കാര്യങ്ങൾ പ്രവർത്തനം വിദ്യാഭ്യാസപരമായ പ്രവർത്തനങ്ങൾ കാഴ്ച വെക്കാറുണ്ട് എല്ലാവിധ ടെക്നോളജികളും വിദ്യാഭ്യാസ രംഗങ്ങളിലെ ടെക്നോളജികൾ ഗതാഗതങ്ങൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും എൻ്റെ ഗ്രാമത്തിൽ എൻ്റെ പ്രദേശത്ത് വളരെ സുലഭമായതു കൊണ്ട് തന്നെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും എൻ്റെ പ്രദേശത്ത് നേരിടുന്നില്ല അതുപോലെ എല്ലാ വിദ്യാർത്ഥികൾക്കും പെൺകുട്ടികൾ ആണെങ്കിലും ആൺകുട്ടികൾ ആണെങ്കിലും എല്ലാവർക്കും തുല്യമായിട്ടുള്ള വിദ്യാഭ്യാസമാണ് എൻ്റെ പ്രദേശത്ത് ഉള്ളത് അതുപോലെ ഇവിടെയുള്ള ഈ സ്കൂളുകൾക്ക് പുറമേ സ്കൂളുകളും കോളേജുകളും മറ്റ് യൂണിവേഴ്സിറ്റികൾക്ക് എല്ലാം പുറമേ ഇവിടെ ഒരുപാട് ട്യൂഷൻ സെൻ്ററുകൾ ചെറിയ ചെറിയ കാഫെകൾ എഡ്യൂക്കേഷൻ കാഫേ പോലെ എന്താണ് ഒരുപാട് ആധുനിക കാലത്തുള്ള വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ഉതകുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ എൻ്റെ പ്രദേശങ്ങളിൽ എല്ലാം നടന്നു പോകുന്നുണ്ട്